ഹലൊ ഹലോ ഗ്യാസ് ഏജൻസി അതെ അ രജിസ്റ്റെർ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് വേണം എത്തും പറഞ്ഞൊ പറഞ്ഞൊ അ അ അ ആ അത് പേ പേടിക്കാനൊന്നുവില്ല നന്നായിട്ട് സിലിണ്ട്റ് നമ്മൾ കൊണ്ടുവന്ന് നല്ല സുരക്ഷിതമായ സ്ഥലത്ത് വെയ്ക്കുക കഴിവതും പുറത്ത് വെക്കാൻ പറ്റുവെങ്കിൽ പുറത്ത് വെയ്ക്കുക പിന്നെ നമ്മൾ ഉപയോഗിച്ചതിനു ശേഷം അത് ഓഫ് ചെയ്ത് തി തി ടാപ്പ് തിരിച്ച് വെക്കുക കാര്യവെന്നാന്ന് വെച്ചെന്നാൽ ലീക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ രാത്രീലാണ് നമ്മൾ ഉ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് വെക്കാൻ നോക്കുക അതുപോലെ തന്നെ ട്യൂബും കാര്യം ആ ട്യൂബിനകത്ത് ട്യൂബക്കെ അതിനകത്ത് ലീക്ക് ചെ മണവടിക്കുവാണെങ്കിൽ നമ്മളൊരിക്കലും റൂമ് തുറന്ന് വന്ന് കയറിവന്നുടനെ തന്നെ ലൈറ്റ് ഓൺ ചെയ്യാൻ പാടില്ല മണമുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ജനലുകളക്കെ തുറന്നിടാൻ ശ്രമിക്കുക അ പിന്നെ എന്ന ഫ്ളെയിം വന്ന് കഴിഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ ഒരു നനഞ്ഞ ചാക്കിട്ട് മൂടുക എന്നിട്ട് അത് സ്വിച്ചോ ഇത് ഓഫ് ചെയ്യുക ആ ഓഫ് ചെയ്തിട്ട് ആ സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ ഐൻ്റെ റെഗുലേറ്ററൊക്കെയാണ് നമ്മൾ നോക്കണത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതും ലീക്കാകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടോന്ന് നോക്കണം ഒരു സ്വിച്ചിനകത്തുവക്കെ ലീക്ക് ചെയ്യാൻ വരെ സാധ്യത ഉള്ളതാണ് അപ്പമത് സ്വിച്ചുവക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം പിന്നെ പിള്ളേർ കയറി നോക്കാത്ത ഉള്ളപ്പം സൂക്ഷിക്കണം അതിനകത്തൊക്കെ സൂക്ഷിക്കണം കഴിവതും നമ്മൾ പുറത്ത് വെയ്ക്കാൻ ശ്രമിക്കുക അപ്പം അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കിയാൽ മതി രാത്രിയാണേലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമേ അത് ഓഫ് ചെയ്തു വെച്ചാൽ മതി അടുക്കളേലേക്കായിട്ട് അതാ ഞാൻ പറഞ്ഞത് നമ്മൾ നോ ഗ്യാസ്സ് നമ്മൾ രാവിലെ എഴുനേൽക്കുമ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേനും വല്ല മണവൊ വല്ലോം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്യരുത് ജനലുകളക്കെ നമ്മൾ തുറന്നിടുക അപ്പം ചിലത് ചില ഗ്യാസ്നാത്ത്ന്ന് ഫ്ളെയിം വരാറുണ്ട് നമ്മളോൺ ചെയ്യുമ്പോൾത്തന്നെ ചിലപ്പം ഇങ്ങനെ ഫ്ളെയിം പ ഇതിനകത്ത് ലീക്കാവാറുണ്ട് അപ്പമതക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ആ സൂക്ഷിക്കുക പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അ അ ശരിയെന്നാൽ